ഞാൻ ഒരു പ്രിയങ്കരനായ മലയാളി എഴുത്തുകാരനെ കുറിച്ചാണ് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ഉള്ളത് അത് ബെന്യാമിൻ്റെ ആട് ജീവിതം ബെന്യാമിൻ എന്ന ആ എഴുത്തുകാരൻ ആ ആളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ അയാൾ എഴുതിയ ഒരു എഴുത്ത് എഴുത്താണ് അത് കാരണം ആ മനുഷ്യൻ പ്രവാസി ജീവിതത്തിന് വേണ്ടി അയാൾ അയാൾ പോയി അയാൾ അനുഭവിച്ച് അയാളുടേതായ ആ വേദനകളും ഭാരങ്ങളും ദുഃഖങ്ങളുമൊക്കെ അയാൾ ഒരു പുസ്തകമായി എഴുതിയ ഒരാളാണ് ബെന്യാമിന് ആ മനുഷ്യൻ പ്രവാസി ജീവിതത്തിലേക്ക് പോയപ്പോൾ ആ മണലാരുണ്യത്തിൽ ആ വിവാഹ ജീവിതത്തിന് ശേഷമാണ് അയാൾ അങ്ങോട്ട് പോകുന്നത് അവിടെ വെച്ച് അയാൾക്ക് ആരുമായി ബന്ധപ്പെടാനോ ആരുമായി ഒരു ഫോൺ കോളോ അന്നുള്ള കാലങ്ങളിൽ അങ്ങനെയോ ഒന്നും ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ട് അന്ന് ജീവിച്ചൊരു കാലമായിരുന്നു ആ മനുഷ്യനെ അപ്പം അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഭാര്യ കാണാനോ അയാളുടെ കുടുംബത്തെ അറിയാനോ മാതാപിതാക്കളെ കാണാനോ ഒന്നും പറ്റാതെ ആ മണലാരുണ്യത്തിൽ ആ മനുഷ്യൻ ജീവിക്കുന്നു ആടുകളുടെ ആട് ആടിൻ്റെ ഒരു ജീവിതം പോലെ ആ ഒട്ടകങ്ങളുടെ ഒക്കെ ഇടയിൽ ആ മനുഷ്യനൊരു ആട് ജീവിതമായി ഇയാൾ ജീവിക്കുകയാണ് കാരണം ഭാര്യ കാണാനോ അവരെ ഒന്ന് പ്രണയിക്കാനോ അവരുടെ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അറിയാനോ ഒന്നും പറ്റാതെ ആ മനുഷ്യൻ്റെ ആ ജീവിതത്തെ കുറിച്ചാണ് എനിക്ക് വളരെയായി ഹൃദയത്തിൽ എനിക്ക് അത് തോന്നിയത് ആ മനുഷ്യൻ്റെ ജീവിതം അതൊരു വലിയൊരു കഷ്ടമായ ഒരു ജീവിതമാണ് കാരണം മണലാരുണ്യത്തിൽ പോയി നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടെ മറ്റ് ആരുമില്ലാതെ ഒരു ജനവാസമില്ലാതെ ഒരു ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആടിൻ്റെ പാലുകളൊക്കെ കുടിച്ച് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയി ആ മനുഷ്യൻ്റെ നല്ല കാലങ്ങളൊക്കെ അവിടെ അങ്ങനെ ആ ഒട്ടകങ്ങളോ ആടോ ഒക്കെ ആയി കടന്ന് പോയി അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ് അതിൻ്റെ ആ മൃഗങ്ങളുടെ ഇടയിൽ പെട്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒന്നും സാധിക്കാതെ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും അതൊരു ആഴമായി പതിയുന്ന ഒരു ഒരു എഴുത്തുകാരനായിട്ടാണ് നമുക്കത് തോന്നുന്നത് കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഭാര്യ മക്കളെ കുടുംബം മാതാപിതാക്കൾ സഹോദരങ്ങൾ അവൻ്റെ നാട് അതൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ എല്ലാം വെറുത്തു കൊണ്ട് ആ മനുഷ്യൻ്റെ ആ ജീവിതത്തിലുള്ള അനുഭവിച്ച വേദനകളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഒരു പ്രവാസി ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അറിയാം നമ്മുടെ നാടും വീട് എല്ലാം വിട്ട് പോകുന്ന ഒരു സമയമാണല്ലോ കാര്യം സാമ്പത്തികത്തിന് വേണ്ടിയാണ് കടന്ന് പോകുന്നത് എങ്കിൽ പോലും നമ്മുടെ സ്നേഹങ്ങളോ നമ്മളെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരു ജീവിതത്തെക്കുറിച്ചാണ് ആ മനുഷ്യൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം ആ ആ എഴുത്തുകാരനെക്കുറിച്ച് എനിക്ക് ഒരു നല്ലൊരു പ്രിയങ്കരനായ ഒരു മലയാളി എഴുത്തുകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആ എഴുത്തുകാരനെയാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ആ രചനകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്